ഹലോ ഈശോ മിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചനല്ലേ ആ അച്ചോ അച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ആ പെരുന്നാളൊക്കെ വരുന്നു അതു വളരെ ഭംഗിയായിട്ട് നടത്തണമേ അച്ഛാ അതേ ആ ആ നമുക്ക് ആദ്യമായിട്ട് പിന്നെ പള്ളിയില് പാരിഷ് ഹാളില്വച്ചൊന്നു വിളിച്ചുകൂട്ടണം ആ അത് അതുകഴിഞ്ഞ് അവരുടെ അഭിപ്രായങ്ങള് സ്വീകരിക്കണം പിന്നെ ആ ആ ആ അതുപോലെതന്നെ ഈ നമ്മുടെ ഓരോ ഇടവകക്കാരുടെയും കൂട്ടായ്മകളില് അതിൻ്റെ പ്രത്യേക ആൾക്കാരെ വിളിക്കണം അവരുടെയെല്ലാം

ആ ആ അതുപോലെതന്നെ എന്തെങ്കിലും എന്നാ പെരുന്നാളിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ഒരു കലാപരിപാടികള് നാടകമോ അല്ലെങ്കില് ഒരു ബന്ധപ്പെട്ട എന്നാ ഗാനമേളയോ ഓ ഇപ്പോള് ഗാനമേളയൊക്കെ പലയിടത്തും നടത്താറില്ല ഇപ്പോള് ഈ പിള്ളേര് ഗ്രൂപ്പുകളെല്ലാംകൂടെ ഇറങ്ങി പ്രശ്നമുണ്ടാക്കാന്നു പറഞ്ഞ് പല സ്ഥലത്തും ഗാ ഗാനമേളകൾ ഇപ്പോള് നടത്താറില്ല നാടകങ്ങളാണ് നടത്താറുള്ളത് നല്ല നാടകമേതെങ്കിലും ബുക്കെയ്താല് മതി ആ ആ അതുപോലെതന്നെ ടൗണൊക്കെ കൃത്യമായിട്ടൊന്ന് അലങ്കരിക്കാൻ ഉള്ള ഏർപ്പാട് ആക്കണേ അതിനു പ്രൈസൊക്കെ കൊടുക്കണം ഇല്ലെങ്കില് അതു കൃത്യമായിട്ട് അലങ്കരിക്കുകയുള്ളൂ അതു കൃത്യമായിട്ട് ആ ഉവ്വ് അതിപ്പോള് ആ അതുപോലെ പിന്ന പെരുന്നാള് നല്ല എന്നാ നല്ല ഈ ചെണ്ടമേളവും ബാൻഡും വേണം അത് നല്ല ട്രൂപ്പുകളെ അതിന്റെ അകത്ത് അണിനിരത്തണം അതുപോലെതന്നെ ഈ എന്നാ പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞുവരുമ്പോള് നല്ലൊരു സ്നേഹ വിരുന്നു നടത്താനായിട്ട് നമ്മള് ശ്രമിക്കണം അത് അത് എല്ലാ സമയത്തും നമ്മള് നടത്തുന്നതാണ് പക്ഷെ അത് ഇതിന്റെയകത്ത് ക്രിസ്ത്യാനികള് മാത്രമല്ല വരുന്നത് അതിന്റെയകത്ത് വിവിധ മതസ്ഥര് അതിന്റെയകത്തു പങ്കെടുക്കുന്നതാണ് അത് ഒരു പോരായ്മ നടത്താതെ നടത്താനുള്ള സംവിധാനം അതെല്ലാം ആലോചിച്ചു നമുക്കു ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പൊതുയോഗത്തിലും പാരിഷ് ഹാൾളെ നിർദ്ദേശങ്ങളൊക്കെ വരുമല്ലോ

ആ അതു പോകണം ഒരു ഏകോപനം അത് ഏതെല്ലാം കാര്യങ്ങളില് ഒരു ചാർട്ട് പോലെ നമ്മള് എഴുതിയിട്ടു വേണമല്ലോ അതിന്റെയകത്ത് അവതരിപ്പിക്കാന് എന്നെങ്കിലെ അതിൻ്റെ മറുപടി ഏകീകരിച്ച് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അപ്പോഴാ ആ അപ്പോള് അച്ഛാ ഇന്ന് ഇന്ന് വൈകിട്ടോ അല്ലെങ്കില് നാളെ വൈകിട്ടോ നമുക്കേ കൈക്കാരന്മാരെല്ലാവരുംകൂടെ കൂടിയിട്ട് നമുക്ക് പള്ളിമുറിയിലിരുന്നൊന്ന് ആലോചിക്കാം അതാലോചിച്ചുകഴിഞ്ഞാല് ഒരു ഒരു ഏകദേശ ഒരു ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കിയിട്ടെ ആ ചാർട്ടിനനുസരിച്ച് നമുക്ക് പൊതുയോഗത്തില് അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം സ്വീകരിക്കുകയല്ലേ നല്ലത് ആദ്യം നമ്മള് ഒരു നമ്മളൊരു അവതരിപ്പിക്കണമല്ലോ എന്നെങ്കിലല്ലേ അതിൻ്റെ ചർച്ച വരികയുള്ളൂ മറുപടി വരികയുള്ളൂ

ആ ശരി ഓക്കെ മ് മ് മ്